ഡോക്ടർ ആ ഒരു കുട്ടിക്ക് ഭയങ്കര ക്ഷീണം തളർച്ചയും എന്തോ എന്നറിയില്ല ഭയങ്കര ക്ഷീണം കളിക്കാനോ ഒന്നും പോണില്ല ഭക്ഷണം കഴിക്കാനൊക്കൊരു മടി അങ്ങനക്കെ

പിന്നെ വയറുവേദനേം പറയുന്നുണ്ട് കാലുവേദനേം പറയുന്നുണ്ട് തലവേദനയുണ്ട് ഭക്ഷണം കഴിക്കാനും മടി എല്ലാം ഇതാണ് പിന്നെ ഇടക്കെടക്ക് പുറം വേദനയൊക്കെ പറയുന്നുണ്ട് പുറം വേദന മേൽ വേദനയൊക്കെ പറയുന്നുണ്ട് പിന്നെ പിന്നെ കാലമൊക്കെ ഭയങ്കര വേദനയാണവക്ക് എന്തോ എന്നറീല്ല ഓൾ എണീക്കണില്ല അങ്ങനെ ഒരു ഇല്ലിങ്ങനെ കൊടുക്കുക ഒരു ക്ഷീണം ഒരു പനി മാതിരി ഇങ്ങനെ കിടക്കാണ് എനിക്കൊരു ഇതന്നെ ആ അപ്പങ്ങനെ ചെയ്യാമല്ലേ ഞായർ ശരി എന്നാൽ